കാലാവസ്ഥ വിധാനങ്ങൾ നമ്മളെ ഇപ്പോൾ അങ്ങനെ കൃഷീനെ ബാധിക്കണതെന്നു പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ അതില് ബന്ധപ്പെടും ഇപ്പോൾ നമ്മൾ ചില സമയത്ത് ഇപ്പോൾ മഴ പ്രതീക്ഷിച്ചിട്ട് കൃഷി ഇറക്കും ആ സമയത്ത് മഴ കിട്ടിയില്ലായെന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ആ സമയത്ത് കറക്റ്റ് സമയത്ത് വെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടമായിരിക്കും അതുപോലെ ഇപ്പോൾ നമ്മൾ വേനൽ ഇപ്പോൾ ഒരുപാട് ചൂടാണെങ്കിലും പച്ചക്കറി കൃഷിക്ക് നമുക്ക് ബുദ്ധിമുട്ടാവും വെള്ളം കിട്ടിയില്ല അങ്ങനത്തെ സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഈ പ്രതീക്ഷിക്കാതെ വരുന്ന മഴ അത് നമ്മുടെ ഇപ്പോൾ മുളച്ചു വരുന്ന സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ മുള ഒക്കെ നശിച്ചു പോകും പിന്നേ കാറ്റ് കാറ്റിനെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റത്ത് ഈ വാഴകളൊക്കെ ഒടിഞ്ഞു പോവുക അതുപോലെ തെങ്ങ് മറിയുക പിന്നെ കവുങ്ങ് പൊട്ടി വീഴുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ ഈ വരൾച്ച കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസ് തന്നെ ആണ് മഴ കിട്ടേണ്ട സമയത്ത് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കൃഷിക്ക് കൃഷിക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ അത് ഏത് കൃഷി ആയാലും പച്ചക്കറി കൃഷി ആയാലും ഗോതമ്പായാലും ഇപ്പോൾ അരി ആയാലും ഏത് കൃഷി ആയാലും നമുക്ക് ആ സമയത്ത് കറക്റ്റ് അതിൻ്റെ ആ ഒരു നേരത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഉപകാരപ്പെടാണ്ടാവും അതുപോലെ നേരം തെറ്റി വരുന്ന മഴ ആണെങ്കിലും ഇത് തന്നെയാണ് ഇപ്പോൾ അത് ഏതാണോ സമയം എല്ലാം അതാത് സമയത്ത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും